അടുക്കള എന്നുപറയുമ്പോൾ നമ്മുടെ വീട്ടിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മൾ ആഘോഷ ദിനങ്ങളിൽ വീട്ടിൽ കുടുംബക്കാരെയെല്ലാരുമായി സമയം ചിലവിടുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം ചിലവിടുന്ന ഒരു സ്ഥലം തന്നെയാണ് അടുക്കള എന്നു പറയുന്നത് അമ്മമാരും ആൻ്റിമാരും എല്ലാവരും അടുക്കളയിൽ പാകം ചെയ്യുന്നതിനോടൊപ്പം അവരുടെ ചിന്തകളും അതുപോലെ സന്തോഷകരമായ നിമിഷങ്ങളും പങ്കുവയ്ക്കുന്നത് അടുക്കളയിലൂടെയാണ് രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടാകുന്നതോ ഉണ്ടാകുന്നതും സന്തോഷത്തോടെ അതു മറ്റുള്ളവർക്ക് പങ്കിടുന്നതും അടുക്കളയിൽ നിന്നാണ് അടുക്കള എന്നു പറയുമ്പോൾ വീട്ടിലെ ഒരു പ്രധാന സ്ഥലങ്ങളിൽ ഒന്നു തന്നെയാണ് അടുക്കളയിൽ വച്ചാണ് അമ്മമാരുടെ മനസ്സുകളിൽ പല ചിന്തകളും പല നല്ല നല്ല കാര്യങ്ങളും ഉത്ഭവിക്കുന്നത് അത് അടുക്കളയിൽ വച്ചവർ കുടുംബക്കാരുമായി സമയം ചിലവിടുന്നു നല്ല നല്ല സമയങ്ങൾ അവിടെ വച്ച് ചിലവഴിക്കുന്നു